എനിക്കല്ലാതെ എൻ്റെ കുടുംബത്തില് ഏറ്റവും ഇഷ്ട്ടം എൻ്റെ ഹസ്ബൻഡിനും ഹസ്ബൻഡിൻ്റെ പിന്നെ പപ്പയ്ക്കും ആട്ടൊ അവര് രണ്ടുപേരും ഭയങ്കര കെയർ ആണ് പാപ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കില് പുള്ളി കുറച്ച് പഴയ ആളാണ് ഇപ്പം ഇപ്പത്തേനെക്കളും പഴയരീതിയിൽ ചെയ്യുന്ന കൃഷിരീതിയാണ് ആൾക്ക് അറിയുന്നത് അപ്പോൾ ആൾക്ക് എന്തുചെയ്യുന്നതിലും ഒരു കണക്ക് കൈയ്യും ഇതൊക്കെ ഉണ്ട് ഇപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും വളരെ നല്ലരീതിയിൽ ചെയ്യും അതായിത് ആള് എന്തുചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മളത് നോക്കണ്ട അത് ഫിനിഷ് ചെയ്യുന്ന രീതിയാണ് പൂന്തോട്ടത്തിന് ഗാർഡനിങ് ഉണ്ടല്ലൊ അത് നല്ലരീതിയില് അറേഞ്ച്മെൻസ് ചെയ്യുന്നത് സെറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അങ്ങനെചെയ്യും പിന്നെ ആമ്പലിന് പിന്നെ നമ്മള് റബ്ബറൊക്കെവെച്ച് അതായിത് പിന്നെ ടാറിൻ്റെ അതായിത് പിന്നെ ടയറുണ്ടല്ലൊ ടയർ കട്ട് ചെയ്തിട്ട് ഒരു പൂക്കൊട്ട പോലെയാക്കിട്ട് അതിൻ്റെയുള്ളിൽ സിമൻ്റൊക്കെ വച്ച് ആമ്പലൊക്കെ സെറ്റ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങള് പിന്നെ കല്ലൊക്കെ വച്ചിട്ട് പോർട്ട് പോലെയുണ്ടാക്കും പിന്നെ നമ്മടെ പഴയ തുണികളുണ്ടല്ലോ തുണി സിമൻ്റില് മുക്കിയിട്ട് പിന്നെ കൊട്ടപോലെയൊക്കെയാക്കിട്ട് അതിലൊക്കെ ചെടിനടും അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ഗാർഡനിങ് നല്ല ടിപ്സൊക്കെയുണ്ട് പിന്നെ ഉരുളം കല്ലൊക്കെവച്ച് സെറ്റ് ചെയ്യല് അറേയ്ജ്മെൻറ്സ് ചെയ്യല് പിന്നെ കയറുവച്ച് ഇ പിന്നെ അതായിത് നമ്മടെ മണിപ്ലാൻറ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നതില് ഒരു പ്രത്യേക കഴിവാണ് എന്ത് ഭംഗിയായിട്ടാന്നറിയോ മണിപ്ലാൻറ്സ് ഒക്കെ സെറ്റ് ചെയ്യുക ഭയങ്കര ഭംഗിയായിട്ട് ചെയ്യും നല്ല രസാണ് ചെയ്യുന്നത് പിന്നെ നമ്മക്ക് ആ ഭാഗത്തോട്ട് ചിന്തിക്കേണ്ടെ ആവിശ്യം വരില്ല ഹസ്ബൻഡും അതെ ആൾക്കും ഭയങ്കര ഇഷ്ട്ട എന്നും രാവിലെ ഗാർഡനിൽ പോയിട്ട് പിന്നെ ഒരു ചെറിയ ഇപ്പൊൾ മുറിച്ച് കളയേണ്ടതാണെങ്കിൽ മുറിച്ച കയറില്ല കാരണം നമ്മള് എന്നും നോക്കുമ്പോൾ ചെറിയ ചെറിയ കാട് വരുമ്പോൾ പറിച്ച് കളയും ഞാന് എവിടെങ്കിലുമൊക്കെ കിട്ടണ ചെടി കൊണ്ടുപോയി കുത്തിയിടലൊക്കെയാണ് പക്ഷെ അത് നോക്കുന്നതൊക്കെ ഇവരാട്ടൊ സത്യംപറഞ്ഞാല് എനിക്കിവിടെ എന്തുകിട്ടിയാലും ഞാൻ കൊണ്ടുവന്ന് ഏതെങ്കിലും ഇല്ലാത്ത കവറിലൊക്കെ കൊണ്ട്പോയി കുത്തിയിടും ചിലപ്പം എല്ലാം ഒരുകവറിൽ കുത്തും ഏതെങ്കിലും പിടിക്കട്ടെന്ന് ചിലപ്പോൾ എല്ലാം പിടിക്കും അപ്പം അത് മാറ്റി മാറ്റി നടുന്നതും ഒക്കെ വീട്ടിലെ ഹസ്ബൻറ്റും പപ്പയാണ് വളരെ നല്ലരീതിയിൽ ചെയ്യും അതൊക്കെ